പലകാര്യങ്ങളും ഉണ്ടാക്കാനായിട്ട് നമുക്ക് വൈക്കോൽ ഉപയോഗിക്കാന് സാധിക്കും കുടിലുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വൈക്കോൽ ഉപയോഗിക്കാം അതുപോലെത്തന്നെ വൈക്കോലിൻ്റെ ഗുണനിലവാരം നോക്കിയിട്ട് വേണം നമ്മള് ഉപയോഗിക്കാൻ കാരണം ചെല വൈക്കോലുകളില് നമുക്ക് വെട്ടി കൃത്യമായി വെട്ടിയെടുക്കാനൊന്നും പറ്റത്തില്ല അപ്പോള് അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മള് വൈക്കോല് ഉപയോഗിക്കാൻ ഇപ്പോള് വീടുകളും മരങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വൈക്കോല് നല്ല രീതിയില് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെത്തന്നെ വൈക്കോലിൻ്റെ നിറവ്യത്യാസം അതനുസരിച്ച് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാല് പല ഷെയ്ഡുകളിലുള്ള ഒരൂ കാര്യങ്ങളൊക്ക ഉണ്ടാക്കിയെടുക്കാന് പറ്റും ഇപ്പോള് വീടുണ്ടാക്കുമ്പോഴത്തേക്ക് ഏറ്റവും അടിയില് ഇച്ചിരി കറുത്ത ഡാർക്ക് കളറിലുള്ള വൈക്കോലും പുറത്തോട്ട് വരുമ്പോള് ലൈറ്റ് കളറിലുള്ള വൈക്കോലും ഉപയോഗിച്ച് കഴിഞ്ഞാല് ലൈറ്റ് നല്ല നല്ല നല്ല രീതിയില് നമുക്ക് ആ ഒരു വീട് ഉണ്ടാക്കിയെടുക്കാന് പറ്റും അങ്ങനെയൊക്കെ നമുക്ക് പല രീതിയില് ഉപയോഗിക്കാന് പറ്റും വൈക്കോല്